ഹലോ വർക്ക്ഷോപ്പായിരുന്നു ആരായിരുന്നു ആ എന്തായിരുന്നു പ്രോബ്ലം എന്തായിരുന്നു അ അ പൊട്ടി കുരുങ്ങിയപോലെ അ ആ ഓക്കെ അതായത് സ്റ്റീയറിങ് തിരിക്കുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ സ്റ്റക്കാകുവോ അങ്ങനെന്തെങ്കിലും ഉണ്ടോ അങ്ങനെ കേട്ടില്ല കേട്ടില്ല എങ്ങനായിരുന്നു ഫ്രീയാണ് ആ ഓക്കെ ഓക്കെ അ അപ്പോൾ അതിൻ്റെ സ്റ്റീയറിങ്ങ് ബോക്സിന് സ്റ്റിയറിങ്ങ് ബോക്സിന് ഉള്ളിൽ ഓയിലോ കാര്യങ്ങളൊക്കെയുണ്ടോ നോക്കിയായിരുന്നോ അത് അടിയിൽ അതിൻ്റെ അടീ കയറി കഴിഞ്ഞാൽ മേളീന്ന് ഏതായിരുന്നു വണ്ടി ഏതായിരുന്നു റിറ്റ്സ് അ ആ അതിൻ്റെ അടിയിൽ എന്ത് ചെയ്യാന്നറിയാവോ അ ബോണെറ്റ് തുറന്ന് കഴിഞ്ഞാൽ അതിൻ്റെ മേളില് ഒരു മൂടി പോലുണ്ട് അത് ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ലെവലുണ്ടാകും മാക്സിമം അങ്ങനെ ലെവലുണ്ട് അയിനാത്തൂന്ന് നോക്കി കഴിഞ്ഞാൽ കാണാം പറ്റൂലോ മാക്സിമാണോ മിനിമാണോ ആ അതെ അപ്പോൾ അത് കുറവാണെങ്കിലും എന്ത് ചെയ്ക സ്റ്റക്ക് ആവുകോ അങ്ങനെന്തേലും വരും എന്തെങ്കിലും പൊട്ടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള എ ചിലപ്പോൾ അങ്ങനെ ഏറ്റു വരുകയൊ റാഡ് പോലത്തെ സാധനം ഉണ്ട് അതായത് ഒരു പൽ ചക്രം കറങ്ങുന്ന പോലത്തെ ഒരു സംഭവം ഉണ്ട് അതിൻ്റെ എന്തെങ്കിലും പൊട്ടലോ ചീറ്റലോ എന്തെങ്കിലും മിസ്റ്റേക് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെ വരുക അപ്പം അതും ചിലപ്പോൾ കാരണമാവാം

ടോപ് സെൻസറ് ആ ഓക്കെ ഓക്കെ സെൻസറിൻ്റെ അങ്ങനെ വരാൻ സാധ്യത ഇല്ല കാറിനൊക്കെ സ്റ്റിയറിംഗ് ബോക്സിനാണ് അങ്ങനെ വരുക എന്തേലും പൊട്ടലൊക്കെ വന്നിങ്ങനെ ടിക്ന്നൊര് സൗണ്ടൊക്കെ സെൻസറിന്റെ വരാൻ സാധ്യത ഇല്ല കാരണം ഏതാ മോഡൽ ഏതാ റിറ്റ്സ് രണ്ടായിരത്തി പതിമൂന്ന് അല്ലെ ആ ഓക്കെ അതിന് ചിലപ്പോൾ ഫുൾ ഓപ്ഷൻ ആയിരിക്കൂല അതായത് ഏതാ ഓപ്ഷൻ ഏതാ മിഡിലോ ആ അതിന് അതിന് ഇതിന് സെൻസർ ഉണ്ടാവുകേലാ ഇല്ലില്ല അല്ലല്ല അല്ലല്ല വേറെ മോഡലുണ്ട് അതായത് സെൻസറുള്ള മോഡലുണ്ട് സെൻസറില്ലാത്ത മോഡലുണ്ട് രണ്ട് മോഡലുണ്ട് എന്ന അതിൽ നിങ്ങളെ തെറ്റി ധരിപ്പിച്ചതായിരിക്കും അപ്പോൾ സെൻസറില്ല അപ്പോൾ അതിൻ്റെ ഉള്ളിലൊള്ളതെന്തെങ്കിലും പോയതായിരിക്കാം അപ്പം സ്റ്റിയറിങ് ബോക്സ് ഒന്നല്ലെങ്കിൽ സ്റ്റീയറിങ് ബോക്സ് മാറ്റാം അല്ലെങ്കിൽ അതിന്റുള്ളിൽ റാഡ് മാത്രം മാറ്റാം ഓക്കെ നാളെ ഒന്ന് എന്തായാലും കൊണ്ട് പോര് നിങ്ങൾ ആ ഓക്കെ എന്നായാലും